ഞാൻ ഒരുപാട് പാട്ട് പാടാനായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഒരുപാട് കോമ്പറ്റീഷന്സിലൊക്കെ ഞാന് പാട്ട് പാടിയിട്ട് എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാന് നന്നായിട്ട് പാട്ട് പാടുമെന്ന് ഞാന് വിചാരിക്കുന്നു ഭാവിയിലേക്കുള്ള ലക്ഷ്യങ്ങള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു അധ്യാപകന്റെ അടുത്തുനിന്ന് കുറച്ചും കൂടി എനിക്ക് കുറച്ച് പാട്ട് കാര്യങ്ങളും എല്ലാം പഠിക്കണം അത് പഠിച്ചതിന് ശേഷം എനിക്ക് എന്തെങ്കിലുമൊരു ടി വി റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം അപ്പം അതെന്റെ പാട്ടിന്റെ കുറച്ച് കരിയർ വളരാനും എനിക്ക് മുതല്ക്കൂട്ട് ആയിരിക്കുമെന്ന് ഞാന് വിശ്വസിക്കുന്നു ഞാനിപ്പം കൂടുതലായിട്ടും പാടുന്നത് ഭക്തി ഗാനങ്ങളും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ഗാനങ്ങളാണ് അപ്പം ഇനി ഭാവിയിൽ എനിക്ക് കുറച്ചും കൂടി സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ എനിക്ക് കുറച്ച് പാടണമെന്നുണ്ട് അതാണ് എന്റെ ഭാവിയിൽ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്റെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഇതൊക്കെയാണ്